കുട്ടികൾ ക്രമമായി സ്കൂളിൽ പോകാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങള് നിരവധിയാണ് ഒന്നാമതായിട്ട് പറയുകാന്ന് ഒന്നാമതായി പറഞ്ഞാല് സ്കൂളിലോട്ടുള്ള ദൂരം രണ്ട് വീട്ടിലെ സാഹചര്യങ്ങള് പിന്നെ പണമില്ലായ്മ പിന്നെന്താ കുട്ടികളുടെ കുട്ടികളുടെ മേൽ വന്നിരിക്കുന്ന കുറേ ചുമതലകൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എന്തേലും അസുഖങ്ങളോ കിടപ്പോ ഒരു ആയി പോയത് മൂലം കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റാത്ത സാഹചര്യങ്ങള് പിന്നെ പിന്നെ അതുപോലെ നിരവധിയായ കാരണങ്ങളുണ്ട് ഇഷ്ടംപോലെ കാരണങ്ങളാൽ കുട്ടികള് ഇപ്പഴും സ്കൂൾ പഠിക്കാൻ പറ്റാത്ത കാര സാഹചര്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് മെയിനായിട്ട് പറയുവാന്ന് ഒരു കാര്യമാണ് സ്കൂ സ്കൂളിൽ ശരിയായ നല്ല സ്കൂളുകളില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തും അതായത് കുറച്ച് കൂടെ ഉൾ സ്ഥലങ്ങളിലൂടെ ഉള്ളിലോട്ട് ഉള്ള സ്ഥലങ്ങള് അതായത് ആദിവാസി കുടുംബങ്ങളൊക്കെ സ്ഥ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും നല്ല സ്കൂളില്ല അല്ലങ്കില് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെയാണ് കുട്ടികളെ അവരുടെ പഠിത്തം തടയുന്നത് മെയിനായിട്ട് പറയുക അവരുടെ ജീവിതത്തിൽ ജീവിത പ്രാരാബ്ധമാണ് വീട്ടിലെ വീട്ടിലെ അപ്പനല്ല അമ്മ എന്തേലും അസുഖം മൂലം കിടപ്പായി പോവുകയും അതുവഴി വീട്ടിലെ കുട്ടികൾക്ക് വീട്ട് കുടുംബം പുലർത്താനുള്ള ചുമതല വരുകയും അങ്ങനെ അവര് പഠിത്തത്തിൽ നിന്ന് വിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൂടുതലും നമ്മള് കാണുക കാണാറുള്ളത് ആ അതൊരു കേസ് അതൊരു കേസാണ് പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞത് ശരി നല്ല സ്കൂളുകളില്ല നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല എന്നൊക്കെ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം നമുക്ക് വാർത്തകളിലും പത്രത്തിലൂടെ ഒക്കെ ആണേലും കാണാൻ പറ്റും ഉൾപ്രദേശമായ അല്ലങ്കില് ആദിവാസി മേഖലകളിലെല്ലാം സ്കൂളുകളൊക്കെ തകർന്ന് പോയി മഴയത്ത് തകർന്നു പോയി അല്ലെങ്കിൽ അവർക്ക് ഒരു കുട്ടിക്ക് പഠിക്കേണ്ട ബേസിക്കായിട്ടുള്ള ഒരു ആ ബേ എന്താ പറയുക ആ ഒരു കുട്ടിക്ക് പഠിക്കേണ്ട ആവശ്യമായ സാഹചര്യങ്ങളില്ലാത്ത സ കാരണങ്ങളാലൊക്കെ സ്കൂളുകൾ പൂട്ടുകയും അതുവഴി അവിടെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തതുമായ കാരണങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട് പണം പിന്നെ വേറൊന്നാണ് പണമില്ലായ്മ ഇപ്പം നല്ല വിദ്യാലയത്തിലോക്കെ പോയി പഠിക്കണമെങ്കിൽ നല്ല പൈസയാവുകയും അതോ അതിന് വേണ്ടി അതിന് വേണ്ടി ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്താത്ത കുടുംബങ്ങള് അല്ലെങ്കിൽ കുട്ടികള് പഠിത്തം തന്നെ വേണ്ടാന്ന് വെച്ച് തൻ്റെ കുടുംബത്തിനായി അധ്വാനിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ദൈനംദിനം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് അപ്പം ഇതുപോലെ ഇഷ്ടംപോലെ കാരണങ്ങളാൽ കുട്ടികള് നമ്മുടെ സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത കാരണങ്ങളിൽ ഒന്നാണ് ഈ കാ ഇതുപോലത്തെ പണമില്ലായ്മ എന്ന കാര്യം വേറൊരെണ്ണം വേറൊരു കാര്യമാണ് കാലാവസ്ഥ നമ്മുടെ ഈ ഹൈ റേഞ്ച് അല്ലങ്കില് നമ്മുടെ ഈ മേഖലകളിലേറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കാലാവസ്ഥ മാറി മാറി വരുന്ന കാലാവസ്ഥ ചൂടാണേ ഭയങ്കര ചൂട് മഴയാണേ ഭയങ്കര മഴ കാറ്റണേ ഭയങ്കര കാറ്റ് അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യത്തിലൂടെ കുട്ടികൾക്ക് സ്കൂളിൽ വരിക എന്നുള്ളത് തീർത്തും അസാധ്യമായൊരു കാര്യമാണ് കാരണം അവര് കാടും മലയും ഒക്കെ കടന്ന് വേണമായിരിക്കും അവർക്ക് സ്കൂളിൽ വരാനപ്പം മഴയാണങ്കില് വെള്ളപ്പൊക്കം കൊണ്ടുള്ള പ്രശ്നങ്ങളും കാറ്റാണെങ്കിൽ മരങ്ങളുടെ ഇടയിലൂടെ ആ വരേണ്ട ഭീതിയും ആ പിന്നെന്താ ചൂടാണെങ്കിൽ വെള്ളത്തിൻ്റെ ക്ഷാമം അല്ലേൽ വ് വരൾച്ച ഒക്കെയാണ് കുട്ടികളെ പ്ല പിന്നോട്ട് വലിക്കുന്നത് കാരണം അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി അവർ പഠിക്കാൻ പോയാലും ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ കാരണം അവർക്ക് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ടപ്പം ഈ കാരണങ്ങളാലൊക്കെയാണ് കുട്ടികള് നമ്മുടെ സമൂഹത്തില് സ്കൂളിൽ പോകാൻ പറ്റാതിരി പറ്റാത്തതിൻ്റെ കാരണങ്ങള്